ഹലോ ഇത് ക്യാബ് ഡ്രൈവറല്ലേ ഞാനേ കുറച്ച് മുൻപേ ഒരു കേബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നിങ്ങളുടെ തന്നെയാണ് ബുക്ക് ചെയ്തത് അപ്പോൾ നിങ്ങൾ എത്ര മണിയാകുമ്പോഴാണ് എത്തുകയെന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അതേ അതേ എനിക്ക് റെയിൽ വേ സ്റ്റേഷനിലേക്ക് അർജൻറായിട്ട് പോകണം അവിടെ ചെന്നിട്ട് ഇപ്പം തന്നെ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കറക്ട് ടൈമിന് ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ ട്രെയിൻ കിട്ട് മിസ്സാകില്ലേ അപ്പം അതാ ഞാനെത്ര മണിക്ക് എത്തുമെന്ന് ചോദിച്ചത് അല്ല നിങ്ങൾ കൃത്യ സമയത്ത് എത്തുകയാണേൽ കുഴപ്പമില്ല സംഭവം എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ അഞ്ച് മണിയാകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞത് അപ്പം അഞ്ച് മണിയാകുമ്പോൾ കറക്ട് നിങ്ങളെത്തുമോ ഇപ്പം നാലേ മുക്കാലായി അതാ ഞാൻ വിളിച്ചു നോക്കിയത് നിങ്ങളിപ്പം കറക്ട് എവിടെ എത്തി ആ ഓക്കെ ഓക്കെ ആ മാവൂർ റോഡിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നാൽ മതി ഞാനിവിടെ വഴിക്ക് ഇറങ്ങി നിൽക്കാം കറക്ട് ടൈമിനെത്തുമല്ലോ അല്ലേ അഞ്ച് മണിയാകുമ്പോൾ കറക്ട് അഞ്ച് മണിയാകുമ്പോൾ എത്തിയല്ലേ എനിക്ക് കറക്ട് നമുക്ക് റെയിൽ വേ സ്റ്റേഷനിലെത്തുകയാണെങ്കിൽ ഒരു മണിക്കൂർ മാക്സിമം എന്തായാലും വേണമല്ലോ കാരണം ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല തിരക്കുള്ള ടൈമും കാര്യങ്ങളല്ലേ ആ ഓക്കെ ഓക്കെ എന്നാൽ അഞ്ച് മണിയാകുമ്പോൾ കറക്ട് എത്തിയാൽ മതി ഞാനിവിടെ റോഡിലിറങ്ങി നിൽക്കാം ഓക്കെ എന്നാൽ